നക്ഷത്രങ്ങളെ കുറിച്ചുള്ള ഐതീഹ്യം വല്ലതും പറയുക എന്ന് വെച്ചാ ഉത്തരാത്ത കൊടത്തിലെ പ്രധാന നക്ഷത്രരാശിയാണ് പ്രാജിത എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം നല്ല തിളങ്ങി നിൽക്കുന്ന സമയത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ എൺപത്തിയെട്ട് രാശികളുള്ള ആധുനിക നക്ഷത്ര രാശികളുടെ പട്ടികയിലും നാൽപ്പത്തിയെട്ടെണ്ണമുള്ള ടോളമിയുടെ പട്ടികയിലും പ്രാജിത വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ സാരിത എന്ന് അർത്ഥം വരുന്ന ലാറ്റിൻ വക്കിൽ നിന്നാണ് ഒറിഗ എന്നുള്ള ഒരു പദം ഒറിഗ എന്നുള്ള ഒരു പേര് എടുത്തിട്ടുള്ളത് പ്രാജിത എന്ന് പറയുന്ന വാക്കിന് ഏകദേശം സൂദൻ വണ്ടിക്കാരൻ എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട് ഗ്രീക്ക് കഥാപാത്രങ്ങളായ എർത്തോനിയസ് മിർട്ടിലെയ്സ് എന്നിവരുടെ ഐതിഹ്യമാണ് ഈ ഒരു രാശിയെ ബന്ധപ്പെട്ടിട്ടുള്ളത്